ഞാൻ ഈ ഇടക്ക് എന്റൊരു ഡ്രീമായിട്ടുള്ള ഐഫോൺ പർച്ചേസ് ചെയ്ത ഐഫോൺ ഫോർട്ടീൻ പർച്ചേസ് ചെയ്യുന്നതിന് മുൻപ് വരെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമ്മളത് വാങ്ങണോ വേണ്ടയോ കാരണം അത് നമുക്ക് ഡെയിലി യൂസിന് ജസ്റ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി യൂസാണോന്ന് എന്നൊന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു അങ്ങനെ കുറെ പേർ ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളത് മേടിക്കുമ്പം ജസ്റ്റ് സ്മൂത്തായിരിക്കത്തില്ല ആൻഡ്രോയിഡ് പോലെ നമുക്ക് കുറെ അത്രക്ക് ഈസി ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളുമല്ല കുറച്ച് ടൈമെടുക്കും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനെന്നൊക്കെ പക്ഷേ ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞ് യൂസ് ചെയ്തപ്പോഴൊക്കെ പക്ഷേ എനിക്ക് ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നിയത് നമുക്ക് നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്നുണ്ട് നല്ല ഹൈ ക്വാളിറ്റിയുള്ള വീഡിയോസൊക്കെ നമുക്ക് വീഡിയോസും ഫോട്ടോസുമൊക്കെ എടുക്കാനും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യാനുമൊക്കെ ഭയങ്കര സ്മൂത്താണ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും എല്ലാ സോഷ്യൽ മീഡിയാസുമൊക്കെ നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഹാങ്ങിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല ചാർജൊക്കെ ഫാസ്റ്റ് ചാർജിങ്ങാണ് അതുപോലെ തന്നെ ചാർജൊക്കെ നിൽക്കുന്നുമുണ്ട് നല്ല രീതിയിലുള്ളൊരു റിവ്യൂ ആണെനിക്ക് ഐഫോണിനെ പറ്റി പറയാനുള്ളത്